നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മലയാള ഭാഷയ്ക്ക് ധാരാളം പങ്കു വഹിക്കുന്നതായി കാണാൻ കഴിയും ഇന്ന് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും മലയാളം ഭാഷ തത്തുല്യമായി പഠിക്കണമെന്നൊരു കാഴ്ചപ്പാടിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്നു നമ്മളെ കൊണ്ടുപോകുന്നത് കാരണം എന്താ മക്കൾ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണമെന്നുള്ള കാരണത്താൽ പ്രസവം അന്യ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വിദേശ നാടുകളിലാക്കിയ മാതാപിതാക്കളുടെ ഒരു കാലഘട്ടമാണ് ഇന്നു നാം ജീവിക്കുന്നത് എന്നാൽ നമ്മുടെ മാതൃഭാഷയായ മലയാളം ഓരോ വാക്കുകളും എത്രയോ എത്രയോ മധുരമനോഹരമാണെന്ന് വായിച്ചിരുന്നാൽ അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ കഴിയൂ മലയാളത്തിൽ ധാരാളം കവികളും എഴുത്തുകാരും ധാരാളം എഴുത്തുകാരും ഒക്കെയുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം കേരളത്തിൽനിന്ന് നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ധാരാളം മലയാളത്തിന് ധാരാളം പങ്കുണ്ട് ഓരോ വ്യക്തിയും മലയാള വാക്കുകൾ ഉച്ചരിക്കുംതോറും അതും ഓരോരോ വാക്കുകൾ അല്ലെങ്കിൽ ഓരോരോ സൃഷ്ടി അതിലേക്ക് പുനർപ്പെടുന്നതായി കാണാൻ കഴിയും ഇപ്പം എന്താണ് എവിടെയാണ് ഓരോ നാട്ടിലും ഓരോ ഭാഷയാണെങ്കിൽപ്പോലും അതും പലതായ രൂപത്തിൽ പല ഭാവനയിൽ ഓരോ കവിയും അല്ലെങ്കിൽ കഥാകൃത്തും അതിനെ ആവിഷ്കരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്